മാധ്യമങ്ങളിൽ വലിയ മാറ്റം ഒന്നുമില്ല മാധ്യമങ്ങളിൽ മലയാളം തന്നെയാണ് അച്ചടിച്ച് വരുന്നത് നമ്മുടെ കേരളത്തിൽ നമുക്ക് മലയാളം ന്യൂസ്പേപ്പറും ഇംഗ്ലീഷ് ന്യൂസ്പേപ്പർ ഒക്കെ ലഭ്യമാണ് അപ്പം നമ്മുടെ നാട്ടിലെ കാര്യങ്ങളും നമ്മുടെ അടുത്തുള്ള വിവരങ്ങളൊക്കെ അറിയാൻ നമുക്ക് മലയാളം ന്യൂസ്പേപ്പർ ആണ് നമുക്ക് മാതൃഭൂമി ഉണ്ട് മനോരമയുണ്ട് ദീപികയുണ്ട് അങ്ങനെ കുറച്ച് ന്യൂസ്പേപ്പറുകളുണ്ട് അതില് നല്ല സ്ഫുടമായിട്ട് അവർ മലയാളത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് അപ്പം നമുക്ക് മക്ക ചെറിയ കുട്ടികളെ അതായത് അക്ഷരം അക്ഷരമാല അറിയാവുന്ന ചെറിയ മക്കളെ മലയാളം വായിപ്പിക്കാനൊക്കെ നമ്മൾ പിന്നെ ഇ ന്യൂസ്പേപ്പർ പത്രം ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഓരോ പാരഗ്രാഫ്സ് അവർക്കിങ്ങനെ കൊടുത്തിട്ട് അവരെക്കൊണ്ട് വായിപ്പിക്കാൻ നമുക്ക് എളുപ്പം ആവുന്നുണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുമ്പം അതേപോലെ തന്നെ സ്കൂളിൽ ലാംഗ്വേജ് പത്താം ക്ലാസ് വരെ മലയാളം ഫസ്റ്റ് മലയാളം സെക്കൻഡ് രണ്ട് ഇതുണ്ട് നിർബന്ധം ആണ് മലയാളം കാരണം അത് നമുക്ക് നമുക്ക് നമ്മുടെ ഇതിൽ നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നമ്മുടെ മലയാളം ഭാഷേനെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാരിലും എത്തിക്കാൻ വേണ്ടി സർക്കാർ ആയാലും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത്